കല്ല്യാണം പോലെയുള്ള വലിയ ചടങ്ങുകളിൽ വലിയ അളവിൽ വെള്ളം ക്രമീകരിക്കാനായിട്ട് സാധാരണ ഞങ്ങൾ കല്ല്യാണവേളകളിൽ ധാരാളം വാട്ടർ ബോട്ടിലുകളോ അല്ലെങ്കിൽ മറ്റ് പാത്രങ്ങളുമായിട്ട് വെള്ളങ്ങൾ സജ്ജീകരിച്ചു വെക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് വാട്ടർ ബോട്ടിലുകളെന്നു പറയുമ്പോൾ പ്ലാസ്റ്റിക്ക് ബോട്ടിലുകളുടെ വലിയ ഒരുപയോഗം ആയതു കൊണ്ടു തന്നെ ഇപ്പം വലിയ തോതിൽ പാത്രങ്ങളിലാണ് ഇത്തരത്തിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് വെള്ളം ശേഖരിച്ച് വെക്കുന്നത് അതു പോലെ തന്നെ മറ്റ് ജ്യൂസുകളായാലും സാധാരണ തിളപ്പിച്ച് വെള്ളമായാലും ഇവയെല്ലാം തന്നെ കല്ല്യാണം പോലെയുള്ള വലിയ വലിയ ചടങ്ങുകളിലൊക്കെ തന്നെ ആളുകൾക്ക് കുടിക്കുന്നതിനു വേണ്ടിയിട്ട് വെള്ളം ക്രമീകരിച്ച് വെക്കുന്നു